ഹോ നമുക്ക് നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക മാധ്യമങ്ങള് അല്ലെങ്കില് വിവര സ്രോതസ്സുകള് ഏതൊക്കെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ സാധാ അല്ല അതായത് കേരളത്തിലെ പല ജില്ലയിലെ പോലെ തന്നെ നമുക്ക് മെയ്നായിട്ടെന്ന് വച്ചിട്ടുണ്ടെങ്കില് പത്രങ്ങള് പത്രങ്ങള് നമ്മുടെ വലിയൊരു വിവര സ്രോതസ്സ് തന്നെയാണ് ഇപ്പോന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നൂറ് ശതമാനത്തിലൊരു പതിനേഴ് ശതമാനം പേരുടെ വീട്ടിലും നമുക്ക് ചിലപ്പോൾ പത്രം വരുത്തുന്നൊരു വീട്ട്കള് വീടുകളായിരിക്കും എന്ന് വച്ചിട്ടുണ്ടെൽ അപ്പോൾ നമുക്കേ വച്ചിട്ടുണ്ടങ്കിൽ ഒരു ദിവസത്തെ മുഴുവനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് പിന്നെ ആൾക്കാര് അറിയാണ്ട് എല്ലാ കാര്യങ്ങളും ആ പത്രത്തിൽ തന്നെയുണ്ടാവും അപ്പം നമുക്ക് എന്ന് വച്ചിട്ടുണ്ടെങ്കില് അത് വായിച്ചിട്ടുണ്ടങ്കി തന്നെ നമുക്ക് നമ്മുടെ ലോക വിവരങ്ങള് കാര്യങ്ങള് എല്ലാം അറിയാം നമുക്ക് ചിലപ്പം ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പ പത്രത്തിലുണ്ടാകും അപ്പം നമുക്ക് ആ വിവരങ്ങള് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നതുപോലെന്ന് വച്ചിട്ടുണ്ടെങ്കി ൽ ഇപ്പോൾ റേഡിയോ കേക്കുന്നവരൊക്കെ ഉണ്ടാകും റേഡിയോകളിലെ വർത്തകള് കാര്യങ്ങളൊക്കെ കേക്കുന്നവരുണ്ടാകും അപ്പോൾ അവർക്കാണെങ്കിലും ഇപ്പോൾ റേഡിയോ വഴി അതായത് അവർക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നത് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ടീ വി ടീ വി ഒരു മാധ്യമാണ് അതായത് മാധ്യമത്തില് വലിയൊരു പിന്നെ അത് തന്നെയാണ് നമ്മുടെ ടീ വി അതായത് ടെലിവിഷൻ അപ്പോന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടീ വി തന്നെ നമുക്ക് പല പല അതായത് ന്യൂസുകള് ഒരുപാട് നമുക്ക് പല ചാനലുകളിലായിട്ട് നമുക്ക് യൂട്യൂബിലും കേൾക്കാൻ പറ്റും